നമസ്കാരം ഞാൻ ഇന്നലെ ഒരു ഈവെനിംഗ് ഒരു അഞ്ചു മണിയോടെ ഒരു കോർണർ സോഫാ സെറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു തലശ്ശേരി അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് ഒരു ഉണ്ടാക്കുന്ന അതായത് സോഫയൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നൊരു ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് ഏകദേശം പത്തൊൻപതിനടുത്ത് പത്തൊൻപ തനായിരം രൂപേൻ്റെ അടുത്ത് വില വന്നിട്ടുണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് പതിനെട്ട് എണ്ണൂറിന് അങ്ങനെ തന്നിട്ടുണ്ട് ആ സോഫ അപ്പം അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അവർ സ്യുഡെന്നാണ് പറഞ്ഞത് സ്യുഡ് വരുമ്പം എന്താ ഒരിക്കലും പൊന്തിപ്പോകില്ല നീങ്ങിപ്പോകില്ലയെന്നു പറഞ്ഞിട്ടാണ് നമ്മളത് പർച്ചേസ് ചെയ്തത് ഒരു നീലയും ചന്ദന കളറും വരുന്ന ഒരു സോഫ സെറ്റാണ് പർച്ചേസ് ചെയ്തത് ഒക്കെ കാണാൻ ഒക്കെ നല്ല ഭംഗിയുള്ള സോഫ സെറ്റാണ് ആ അപ്പം മെറ്റിരിയലും എനിക്ക് കാ ഫസ്റ്റ് കണ്ടപ്പോൾ കുഴപ്പമില്ലാണ്ട് തോന്നി നല്ല സോഫ്റ്റ് സൂപ്പർ സോഫ്റ്റ് കവറൊക്കെ ഉണ്ട് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ സോഫ സെറ്റാണ് അതായത് മൂന്നുപേർക്ക് ഇരിക്കാവുന്ന ഒന്നും പിന്നെ രണ്ട് സൈഡിലും കോർണർ രണ്ട് സൈഡിലും ഓരോ പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സോഫ സെറ്റാണ് അവർ തന്നത് അപ്പം ഈ സ്യുഡെന്ന് പറഞ്ഞ മെറ്റിരിയലാണ് അതൊരിക്കലും പോയി പോകില്ല നശിച്ചു പോകില്ലയെന്നു പറഞ്ഞിട്ടാണ് തന്നത് പക്ഷെ നമ്മളത് വീട്ടിൽ ഇന്നലെ കൊണ്ടു വെച്ചപ്പം തന്നെ കൊണ്ട് വെച്ചപ്പം തന്നെ അതിൻ്റെ ഈ ഉള്ളിലത്തെ കോട്ടൺ ഇല്ലേ ആ കോട്ടനൊക്കെ ഒരു ഭാഗത്തേക്ക് വന്ന് അതുപോലെ തന്നെ ഇതിങ്ങനെ പിഞ്ഞി പോയിട്ടുണ്ടായിരുന്നു ആ മെറ്റിരിയലൊക്കെ പിന്നെ അതിന് യൂസ് ചെയ്ത വുഡ് എന്നു പറയുന്നത് തേക്കാണെന്നാണ് പറഞ്ഞത് തേക്ക് നല്ല വുഡ്ഡാണല്ലോ പക്ഷെ വീട്ടിൽ കൊണ്ടു വെക്കുമ്പം തന്നെ അതിലിങ്ങനെ ഈ പൊടി പൊടി വീഴുന്ന പോലത്തെ ആ പ്രശ്നം ഉണ്ടായിരുന്നു ആ അപ്പം തീരെ നല്ല പ്രോഡക്റ്റല്ല ഭയങ്കര മോശമാണ് ഈ പൈസക്കൊക്കെ ഭയങ്കര നഷ്ടമാണ് സംഭവിച്ചത് വളരെ മോശം പ്രോഡക്റ്റാണ് നമുക്കത് എന്താ പറയുക ധൈര്യത്തിൽ അതിൻ്റെ മുകളിൽ എല്ലാവർക്കും കൂടി ഇരിക്കാൻ തന്നെ പറ്റില്ല പെട്ടെന്നത് ആ മരം നശിച്ചു പോയാലോ എന്നുള്ള ഒരു ഇതുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മെറ്റിരിയലും പെട്ടെന്ന് നശിച്ചു പോകുന്നുണ്ട് അതിങ്ങനെ പിന്നി ഇപ്പം തന്നെ പിന്നി തുടങ്ങി ഫസ്റ്റ് ദിവസം തന്നെ ഇനിയിപ്പം അത് മൊത്തം പിന്നിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഈ കോട്ടനും ഒക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വീടൊക്കെ മൊത്തം അലങ്കോലമാകും ആ പിന്നെ നമുക്ക് നമ്മുടെ ഗസ്റ്റ്ൻ്റെ മുന്നിലൊന്നും അങ്ങനെ വെക്കാൻ പറ്റില്ല അപ്പം മെറ്റീരിയൽ വളരെ മോശമാണ് ഒരിക്കലും ഞാൻ സജ്ജസ്റ്റ് ചെയ്യില്ല കാരണം നല്ല സ്യുഡെന്നു പറഞ്ഞാൽ നല്ല മെറ്റീരിയലാണ് ഞാൻ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടുണ്ട് പക്ഷേങ്കി ഈ ഒരു സ്യുഡെന്ന് പറയുന്നത് നന്നായിട്ടില്ല ഒട്ടും നന്നായിട്ടില്ല കാരണം അത് പെട്ടെന്ന് നശിച്ചു പോയിട്ടുണ്ട്